എന്റെ വീട്ടിലത്തെ ചെറിയ കുട്ടിക്ക് ഒരു ദിവസം കറണ്ടടിച്ചിരുന്നു ഇങ്ങനെ കുറേ സംഭവങ്ങള് എന്റെ വീട്ടില്ത്തന്നെ നടന്നിട്ടുണ്ട് കുറേ സംഭവങ്ങള് പറഞ്ഞാല് തീരാത്ത കുറേ സംഭവങ്ങള് അതുകൊണ്ട് ഞാനും എന്റെ വീട്ടുകാരുമൊക്കെ വൈദ്യുതി അടിച്ചാല് എങ്ങനൊക്കെ അതിനെ പ്രതിരോധിക്കണമെന്നും പഠിച്ചിട്ടുണ്ട് പഠിച്ചിക്ക്ണ് അതുകൊണ്ട് ഞങ്ങള്ക്ക് പ്രശ്നമില്ല എങ്ങനെയെക്കെയെന്നുവെച്ചാല് ആദ്യം കൃത്രിമ ശ്വാസം കൊടുക്കണം പിന്നെ നെഞ്ചിലേക്ക് കുറേ അധികം മര്ദം കൊടുക്കണം സി പി ആര് കൊടുക്കണം പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മള് ചൂടാക്കി കൊടുക്കണം എന്നാലേ രക്തക്കുഴലുകളിലൂടെ രക്തം കട്ട പിടിക്കാതെ പോവുകയുള്ളു വില്ലസിലൂടെ രക്തം കട്ടപിടിക്കാതെ പോവുകയുള്ളു എങ്ങാനും രക്തം കട്ട പിടിച്ചാല് അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്കുള്ള രക്തം പോക്ക് നിലയ്ക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മള് കറണ്ടടിച്ച ഒരാള്ക്ക് കറണ്ടടിച്ച ഒരാള്ക്ക് നമ്മള് ശരീരഭാഗങ്ങള് എല്ലാ ഭാഗങ്ങളും ചൂടാക്കി വയ്ക്കണം അത് വിചാരിച്ചാണ്ട് നേരെ അയാളെ പോയി സ്റ്റീം ബാത്തില് കൊണ്ടുപോയി കിടത്തരുത് സ്റ്റീം ബാത്തിനകത്തേക്ക് കൊണ്ടുപോയി കിടത്തിയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല നമ്മള് ശരീര ഭാഗങ്ങള് കൈകൊണ്ട് തടവി എല്ലാ ഭാഗങ്ങളും ചൂടാക്കിക്കൊടുക്കണം എന്നാലേ ആ കറണ്ട് അടിച്ച ആള്ക്ക് രക്ഷപ്പെടാന് വജിയുള്ളു ഇതൊക്കെയാണ് നാം പറയുന്നത്